കായികം ഇപ്പോൾ നമ്മൾക്ക് ഫോണിലായി ചുരുങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഏതൊരു ഗെയിമും നമ്മൾ പുറത്തിറങ്ങി കളിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം ഫുട്ബോളെന്നോ ഫുഡ്ബോള് ക്രിക്കറ്റ് ഇപ്പോൾ അത് ഫോണുകളിലായി ചുരുങ്ങി ഇപ്പോൾ ഫോണുകളിലാണ് ഒരുപാട് പേർ ഇതിനെ പറ്റി ഈ ഇത് ചർച്ച ചെയ്യുന്നതും ഇതിനെ പറ്റി ഈ കളിക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഫോണുകളിലാണ് കാരണം അവർ പുറത്തിറങ്ങി കളിക്കുന്നില്ല അവരെല്ലാം ഫോണുകളിൽ മുന്നോട്ട് പോവാനാണ് ശ്രമിക്കുന്നത് അതാണ് ഇപ്പോൾ ഫോണുകൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഗെയിമുകളെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ആസ്വദിക്കുക ഇപ്പം പുറത്തിറങ്ങി നമ്മൾ ആസ്വദിച്ചത് പോലെ ആസ്വദിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറല്ല അവരുടെ ആസ്വാദനം ഫോണിലാണ് ഫോൺ ആണ് അവർക്ക് എല്ലാം ഫോണിലൂടെ അവർ ഗെയിമുകൾ കളിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഈ ഫോൺ അത്ര യൂസ് ചെയ്യുന്നത് നല്ലതല്ല പക്ഷെ ഫോണിലൂടെ അവർ അവരുടെ സന്തോഷം കണ്ടെത്തുന്നു പക്ഷെ നമ്മൾ കണ്ടെത്തിയത് പുറത്തിറങ്ങിയിട്ടായിരുന്നു പുറത്തിറങ്ങി കളിച്ച് കൊണ്ടായിരുന്നു